വളരെ നല്ല ഒരു യാത്രയായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ പട്ടണത്തിൽ വരുന്നത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതുപോലെ നല്ല ഒരു ടാക്സി ലഭിക്കുമെന്ന് താങ്കളുടെ പെരുമാറ്റം വളരെ ഞങ്ങളെ ശരിക്കും ആശ്ചര്യപ്പെടുത്തി കാരണം ഞങ്ങൾക്ക് ഈ ഈ മ നഗരത്തിൽ വന്നിട്ട് എവിടേക്ക് പോകണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ എന്നൊന്നും അറിയില്ല ഞങ്ങളുടെ ലക്ഷ്യ സ്ഥാനം അതായത് ഞങ്ങൾക്ക് പോകണ്ട ഓഫീസ് ഇന്ന സ്ഥലത്താണ് എന്ന് മാത്രമേ ഞങ്ങൾക്ക് അറിയുകയുള്ളൂ പക്ഷെ ആ സ്ഥലത്ത് എത്തിച്ചേരുക എന്നത് എങ്ങനെയാണെന്ന് ഒരു എത്തും പിടിയും ഇല്ലായിരുന്നു പക്ഷെ താങ്കളെ പോലെ നല്ല ഒരു ഡ്രൈവർ ഉള്ളത് കൊണ്ട് ഞങ്ങക്ക് ഇവിടെ ഒരല്ലലും അലച്ചിലും ഇല്ലാതെ എത്തുവാൻ സാധിച്ചു താങ്കളുടെ സൗമ്യമായ പെരുമാറ്റം ഞങ്ങൾ ഞങ്ങക്ക് ശരിക്കും ഒരാശ്വാസം നൽകുന്നതായിരുന്നു കാരണം ഇപ് ഈ ഒരു കാലത്ത് ഒരിക്കലും നമ്മൾക്ക് ഇങ്ങനെ ഒരു ഒരു യാത്ര ല ലഭിക്ക അത്ര എളുപ്പം അല്ല കാരണം നമ്മളൊരു നഗരത്തി ചെല്ലുമ്പോൾ ഒര് ഒരു എന്തുവാ പറയുക ഇപ്പം ഒരാൾക്ക് മനസ്സിലാകുവാണ് നമ്മൾ അവിടെ ഒരു അജ്ഞാതനാണ് മീൻസ് സ്ട്രേഞ്ചർ ആണ് ആദ്യമായിട്ടാണ് ആ നഗരത്തിൽ പ്രവേശിക്കുന്നത് എന്ന് അറിയുമ്പം പ്രത്യേകിച്ച് ടാക്സീ ഡ്രൈവർമാർ അവർ മുതലെടുക്കാറുണ്ട് എങ്ങനാന്ന് വെച്ചാൽ അവര് നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ പണം ഈടാക്കുന്നു അതല്ല അവർ നമ്മളെ ഒറ്റി ഒത്തിരി ചുറ്റിക്കുന്നു അല്ലാതെ വേറെ പല പല ദുരനുഭവങ്ങളും ഒട്ടേറെ നമ്മൾ അനുദിനം പത്രങ്ങളിൽ വായിക്കുന്നതാണല്ലോ പക്ഷെ അതിൽ നിന്നും ഒരു വ്യത്യസ്തമായ മുഖവും അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഇടപെടലുമാണ് ഞങ്ങൾക്ക് താങ്കൾ തന്നിരിക്കുന്നത് എന്നിരുന്നാലും ഞങ്ങൾ ഒരിക്കലും മറക്കുകയില്ല ഇങ്ങനെ താങ്കളുടെ ഒരു പെരുമാറ്റം ഇനിയും ഇങ്ങനത്തെ ആൾക്കാർ ലോകത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്നു വളരെ വള ഹൃദയം നിറഞ്ഞ നന്ദി താങ്കളോട് പറയുകയാണ് വളരെ സന്തോഷം എല്ലാ വിധ ആശംസകളും നന്ദി